എനിക്കേറ്റവും പ്രിയപ്പെട്ട മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലാണ് മത്തന് കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല അതായത് അതിന്റെ മീനിങ്ങ് ഇങ്ങനെയാണ് അതായത് അച്ചന് അമ്മ അവരുടെ സ്വഭാവമാണ് മക്കൾക്ക് കിട്ടുക അല്ലെങ്കില് വേറൊന്നുമല്ല അതാണ് മത്തന് കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറയുക അതൊരു പച്ചക്കറിയാണ് രണ്ടും പക്ഷെ അത് ഇങ്ങനെ ഒരു ഒരു രീതീലാണ് നമ്മള് പൊതുവേ പറയാറുള്ളത് നമ്മുടെ പേരന്സിന് അപ്പനും അമ്മയ്ക്കും എന്ത് കഴിവുകളുണ്ടോ അല്ലെൽ അവരുടെ സ്വഭാവം എന്താണോ അത് തന്നെ ആയിരിക്കും അവരുടെ മക്കളിലേക്കും നി ഇപ്പോൾ പ്രതിഫലിക്കുന്നത് അതാണ് മെയ്നായിട്ട് ഈ ഒരു പഴഞ്ചൊല്ലു കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെയും വളരെ നല്ല അര്ത്ഥവത്തായ ഒരുപാട് പഴഞ്ചൊല്ലുകള് മലയാളത്തിന് മലയാള ഭാഷയ്ക്കുണ്ട് ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുകയും കുടു കുടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ് കഴിയുന്ന പോലുള്ള അവനവന്റെ കൂനറിഞ്ഞ് ഞെളിയണം എന്ന് പറയും അതായത് നമ്മള് നമ്മള്ക്ക് കഴിയിന്നതില് കൂടുതല് ഒരു കാര്യം നമ്മള് കൂന് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു ഒരു ഒരു ഭാരം വരെ ആള്ക്കാര് കുനിഞ്ഞ് പോകുന്നതാണ് കൂന് എന്നൊരസുഖം പക്ഷെ അതെ അതുള്ളവര്ക്ക് ഞെളിഞ്ഞ് നിക്കാൻ പറ്റത്തില്ല നേരെ നിൽക്കാന് പറ്റത്തില്ല നമ്മള് വളരെ വലിയ വലിയ കാര്യങ്ങള് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കില് നമ്മൾ ഒരുപാട് പൈസ ആകുന്ന കാര്യങ്ങള് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് പൊതുവേ പറയാറുള്ളവര് പറയാറുള്ളൊരു ഭാഷയാണ് പത്ത് അവനവൻ്റെ കൂനറിഞ്ഞ് ഞെളിയണം എന്നുള്ളത് അതും വളരെ പ്രാബല്യത്തില് ഉള്ള ഒരു കേരളത്തില് വളരെ പ്രാബല്യത്തില് ഉള്ള മറ്റൊരു പഴഞ്ചൊല്ലാണ്